ഇപ്പോൾ പ്രായപൂർത്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിലുള്ള പുതിയ നീന്തൽ ശൈലി എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മള് മേലോട്ട് കയ്യിട്ടിട്ടാണ് അടിച്ചോണ്ട് ഇരുന്നത് അപ്പം ഭയങ്കര പാടായിരുന്നു നമുക്കും നീന്തി പോകാനൊക്കെ ഭയങ്കര പാട് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മള് എന്താ പറയുക ഇപ്പോൾ നീന്തല് നല്ല പ്രൊഫഷണൽസ് ചെയ്യുന്നത് പോലെ നമ്മള് നീന്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പം നല്ല രീതിയില് നീന്താനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നീന്തുന്നതിന് അനുസരിച്ച് നമുക്ക് കൈ വല്ലാണ്ട് തളർന്ന് പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കൊണ്ടാണ് കൂടുതലും അങ്ങനെ പഠിച്ചത് അപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഉള്ളൊരു പുള്ളിയാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പം അത് നല്ല രീതിയില് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നീന്തല് നല്ലൊരു കാര്യാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പുതിയ ശൈലി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ശൈലി പുതിയ ശൈലി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇതെനിക്ക് എൻ്റെ ഒരു മാമനാണ് എന്നെ പഠിപ്പിച്ചത് അപ്പം നല്ലൊരു മുന്നേറ്റത്തിലാണ് ഞാൻ പഠിച്ചത്